ഇന്ത്യയിൽ ആൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ കന്നുകാലികൾ ഉള്ള വീടുകൾ ഉണ്ടാകും എല്ലാവർക്കും അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം തന്നെയാണ് കന്നുകാലികൾ എന്നുപറയുന്നത് എല്ലാ വീടുകളും അവരുടെ ഒരു പാർട്ട് ആയിട്ട് കൊണ്ടുനടക്കുന്നതാണ് ജീവിതത്തിൽ ഒരു വീടിന്റെ ഒരു പാർട്ട് ആയിട്ട് തന്നെ ഒരു ജോബ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വരുമാനമാർഗ്ഗം എന്ന രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒന്നാണ് ഈ കന്നുകാലികൾ എന്നു പറയുന്നത് അതുപോലെ തന്നെ എല്ലായിടത്തും തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു സാധനം ഒരു കന്നുകാലികളെ കൊണ്ടുനടക്കുന്നത് ഡെയ്ലി അതിന് ഉള്ള പുല്ല് വെള്ളം ഭക്ഷണ കാര്യങ്ങളൊക്കെ ആയിട്ട് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് എന്നും അവർക്ക് വേണ്ടിയിട്ട് ഇത് ഡെയ്ലി ബേസിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളുണ്ട് അതുപോലെതന്നെ ഒരു തൊഴുത്ത് കാര്യങ്ങളൊക്കെ ആണ് അതിനു വേണ്ടിയിട്ട് അല്ലാതെ എല്ലാ വീടുകളിലും ഉണ്ടാവും തൊഴുത്ത് ക്ലീൻ ആക്കുക ഡെയ്ലി കുളിപ്പിക്കുക പിന്നെ പാലുകറന്ന് കൊണ്ടുകൊടുക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ദിവസവും അതിന്റെ പുറകെ നടക്കുന്ന വീട്ടിലെ എല്ലാവരും തന്നെ നോക്കുന്നൊരു ഇതായിരിക്കും ഡെയ്ലി പുല്ല് വെട്ടി ഇട്ടുകൊടുത്ത് വെള്ളം വച്ചുകൊടുക്കുക പിന്നെ അതിനു വേണ്ടിയിട്ട് വേണ്ട ഫുഡ്ഡ് ഐറ്റം ആയ കാലിത്തീറ്റ പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടും ഡെയ്ലി അതിനെ കെയർ ചെയ്യും അതുപോലെ ഡെയ്ലി അതിന്റെ കൂടായ തൊഴുത്ത് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നല്ല രീതിയിൽ ആണ് എല്ലാ വീടുകളിലും കൊണ്ടുനടക്കുന്നത്